നമ്മളുടെ മതത്തെക്കുറിച്ച് പഠിക്കുന്നത് ഇപ്പം സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ നമുക്ക് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ പീരിയഡ് തന്നെ നമുക്ക് ഉണ്ടാകും സ്കൂൾ പാഠ്യ പദ്ധ്തികളില് അതില് പക്ഷേ മതം അല്ലെങ്കിൽ ഇന്ന് മതം പഠിപ്പിക്കുക അങ്ങനെ ഒന്നും ഇല്ല എല്ലാ മതങ്ങളും പൊതുവെ തരുന്ന ഒരാശയമാണ് എന്ന് പറയുന്നത് പരസ്നേഹം വിട്ടു വീഴ്ച് സമാധാനപരമായിട്ടുള്ള ജീവിതം ശത്രുതയില്ലായ്മ ഇപ്പം ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലീംസ് ആയിക്കോട്ടെ ഹിന്ദൂസ് ആയിക്കോട്ടെ അവരെല്ലാവരും അനുകരിക്കുന്ന മതം തരുന്ന പൊതുവായ ആശയമെന്ന് പറയുന്നത് തന്നെ സ്നേഹം സഹനം വിട്ടുവീഴ്ച കരുണ അങ്ങനെ ഉള്ള മു മൂല്യങ്ങളാണ് നല്ല മൂല്യങ്ങളാണ് എല്ലാ മതങ്ങളും നമുക്ക് തരുന്ന പൊതുവായ ആശയമെന്ന് പറയുന്നത് ഈ പൊതുവായ ആശയത്തെ കുട്ടികളിലേക്കെത്തിക്കാനാണ് ഓരോ പാഠ്യ പദ്ധതിയും സ്കൂൾ പാഠ്യ പദ്ധതികളിലും ഓരോ ദിവസവും മോറൽ സയൻസ് എന്ന പ്രത്യേക പീരിയഡുകൾ തന്നെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ നിന്നും എന്താണ് കുട്ടികൾക്ക് കിട്ടുന്നത് പ്രയോജനം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ജീ കുഞ്ഞുനാളുകളിൽ തന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരു കുട്ടിക്ക് കുഞ്ഞുനാളുകളിൽ കൊടുക്കുന്ന അറിവുകളാണ് അവർ ജീവിത കാലം മുഴുവനും കൊണ്ട് നടക്കുന്നത് എന്താ പറയുക ഇപ്പം എന്നെ കു കുഞ്ഞ് മനസ്സുകളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയല്ലെങ്കിൽ അവരുടെ വിവേകം എന്ന് പറയുന്നത് നമുക്കെന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു ശൂന്യമായ സ്ലേറ്റ് പോലെയാണ് ശൂന്യമായ ഒരു എന്താ പറയുക പേപ്പർ പോലെയാണ് അപ്പം നമുക്കാ ഒരു പേപ്പറല്ലേ അല്ലെങ്കില് ആ ഒരു കടലാസ്സ് കഷ്ണത്തിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കുക അപ്പോൾ നമ്മളാ ഒരു കുഞ്ഞു നാളുകളിൽ കൊടുക്കുന്ന മൂല്യങ്ങൾ നല്ല മൂല്യങ്ങൾ അത് പാഠ്യ പദ്ധതികളിൽ ഉൾകൊള്ളിക്കുമ്പോൾ കുഞ്ഞ്ന്നാളിൽ തന്നെ അതവര് ഉൾക്കൊണ്ട് കൊണ്ട് വരുമ്പോൾ അവര് എത്രത്തോളം എത്ര ഉന്നതങ്ങളിലേക്ക് ചെന്നാലും കുഞ്ഞുന്നാളിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കും മരണം വരെയും ഒരു തുടക്കക്കാരനായിരിക്കുക ഏത് കാര്യത്തിലും അപ്പോളാ തുടക്കക്കാരാനെന്നും നല്ല മൂല്യങ്ങളോട് കൂടിയായിരിക്കണം അല്ലാ ആ തുടക്കമെന്ന് പറയുന്നത് നല്ല മൂല്യങ്ങളോട് കൂടിയായിരിക്കണമെന്ന ലക്ഷ്യത്തോട് കൂടി ആണ് മതത്തെക്കുറിച്ച് പാ പഠിക്കുന്നത് നമ്മളെ സ്കൂൾ പാഠ്യ പദ്ധതികളിൽ മതത്തെക്കുറിച്ച് പഠിക്കുന്നത് ഒരു ഘടകമായി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചില സ്കൂളുകളില് അല്ലെങ്കിൽ മതം ചില മതങ്ങള് ബേസ് ചെയ്തുള്ള സ്കൂളുകൾ ഫോർ എ എന്ത് പറയാൻ ഉദാഹരണത്തിന് മുസ്ലിം റിലേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിംസിന് മദ്രസാ പഠനങ്ങളുണ്ട് കുട്ടികൾക്ക് ബൈബിൾ ക്ലാസുകളുണ്ട് പിന്നെന്താണ് രാമായണം ഹിന്ദൂസിന് അവരുടേതായ പഠനങ്ങളുണ്ട് അപ്പോൾ അവരുടെ പാഠ്യ പദ്ധതികളിൽ മതത്തിൻ മതം റിലേറ്റഡായിട്ടുള്ള മതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുമ്പോൾ അല്ലങ്കിൽ മതം റിലേറ്റഡ് കാര്യങ്ങളിലവര് അഗ്രഗണ്യരാകുമ്പോൾ അതിൽ പറയുന്ന ഈ കാര്യങ്ങള് അല്ലങ്കില് ഈ പാ പ്രാഥമിക മൂല്യങ്ങൾ അവര് ജീവിത കാലം മുഴുവനും കൊണ്ട് നടക്കാനും അവരുടെ വ്യക്തിത്വ വികസനത്തിൽ അത് വലിയൊരു ഭാഗമാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ പൊതുവായി ഇപ്പോൾ ഓരോ മതങ്ങളും നമ്മള് ഫോക്കസ് ചെയ്യാതെ തന്നെ പൊതുവായിട്ട് പറയുവാണെങ്കില് എല്ലാ സ്കൂളുകളിലും തന്നെ എല്ലാ സ്കൂളുകളിലും പൊതുവായിട്ട് മോറൽ സയൻസ് എന്നുള്ളൊരു പാഠ്യപദ്ധതി തന്നെയുണ്ട് അവിടെ മതം ഇന്ന മതം ഇഅല്ലങ്കിൽ ഈ മതം എന്ന് മെൻഷൻ ചെയ്യാതെ എന്ന് എടുത്ത് പറയാതെ തന്നെ എല്ലാ മതങ്ങളും ഒരുമിച്ച് പറയുന്ന മൂ എന്താണ് ഒരുമിച്ച് പറയുന്ന ആശയം എന്ന് പറയുന്നത് പ്രാഥമിക മൂല്യങ്ങളായ ക്ഷമ സ്നേഹം വിട്ട് വീഴ്ച്ച അങ്ങനെയുള്ള സഹനം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അപ്പം ഇത് എല്ലാം പൊതുവായിട്ട് കുട്ടികളിലേക്കെത്തിക്കാൻ വേണ്ടി തന്നെ സ്കൂൾ പാഠ്യ പദ്ധതികളിൽ മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഒരു പിരീഡ് തന്നെ നമ്മള് വെക്കുന്ന്ണ്ട് അതല്ലാതെ തന്നെ അവരവർക്ക് അവരുടെ മതം മതം റിലേറ്റഡായിട്ടുള്ള പഠനങ്ങളിലും കണ്ടിന്യൂ ചെയ്യാം ആ ഒരു കാര്യത്തിലും തുടരാം അതല്ലാണ്ട് മത മതം റിലേറ്റഡായിട്ടുള്ള മതം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളവര് പഠിക്കുമ്പോൾ ഒ തീർച്ചയായിട്ടും അവരുടെ വ്യക്തിത്വ വികസനത്തിൽ കുറെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഈ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവുകൾ അവരെ ഒത്തിരി സഹായിക്കും ഈ അറിവുകളെ മറ്റുള്ളവരിൽ പകർ പകർന്ന് കൊടുക്കുവാനും മറ്റുള്ളവർക്കത് കാണിച്ച് കൊടുക്കുവാനും കുഞ്ഞുനാളിൽ തന്നെ ഇവർ പരിശീലിച്ച് വരികയും ചെയ്യും അതുകൊണ്ട് സ്കൂൾ പാഠ്യ പദ്ധതികളിൽ മതം ബന്ധപ്പെടുത്തിയുള്ള പഠനം രീതികളിൽ വളരെയധികം ഉപയോഗപ്രദമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതം മാത്രം നല്ലത് എന്നുള്ള രീതീലൊള്ള പഠനമല്ലാതെ എല്ലാ മതങ്ങളും പൊതുവെ പറയുന്നൊരാശയത്തെ കുട്ടികളിലേക്കെത്തിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഉത്തമം